ഹലോ ആ അതേയതേയതേയതേ ആ മനസിലായി മനസിലായി മനസ്സിലായി കഴിഞ്ഞ തവണ എങ്ങനെ ഉണ്ടായിരുന്നു അ ആ

ആ ആ ആ ഉവ്വുവ്വ് നമുക്ക് നമ്മളുടെ ഈ നല്ല ഫോണൊക്കെയുണ്ട് ആ ഫോൺ ഫോണ് എടുക്കുകയാണെങ്കില് നമുക്ക് ചില ഫോണിനു പാതി ശതമാനം പൈസ അടച്ചാല് മതി ചിലതിന് എടുക്കുകയാണെങ്കില് അത് ഒരെണ്ണം ഫ്രീയായിട്ടുണ്ട് അതായതീ പാതിയടയ്ക്കണേ പ ഏ ഫ്രീയുണ്ട് പക്ഷെ അതു നമ്മളെ തമ്മിലുള്ള പരിചയംകൊണ്ട് ഞാന് പറയുകയാണ് അത് എനിക്കു വലിയ താൽപ്പര്യമില്ല അങ്ങനെടുക്കാനായിട്ട് കാരണമെന്നുവച്ചുകഴിഞ്ഞാല് അത് ഏയ് അങ്ങനെടുത്താലുള്ള കുഴപ്പമെന്നുവച്ചാല് മറ്റേതിൻ്റെ ഓരോ വില വച്ച് അതേക്ക് മറ്റെതിൻ്റെ വില കൂട്ടിയിട്ടായിരിക്കും ഇതിനകത്തു വന്നേക്കണേ ആ ഒന്ന് ഫ്രീയെന്നു പറയുമ്പോള് അവര് കാണിക്കുന്നേയുള്ളു മനസ്സിലായോ ആ ആ ഉവ്വ് അപ്പോള് അത് നമുക്ക് അതി ഇന്നിപ്പോഴാണെങ്കില് ഒരു അമ്പത് രൂപയുടെ ഒരു സാധനമാണെങ്കില് നമുക്കൊരു നമുക്ക് പരിചയമൊക്കെയുള്ളതിൻ്റെ പേരിൽ നമുക്കറിയാവുന്ന കസ്റ്റമറാണല്ലോ അപ്പോഴതിൻ്റെയൊരു നാല്പതു രൂപയുക്കു തരാന് സാധിക്കും ഏ അപ്പോള് അത് മറ്റേതെടുത്തു കഴിഞ്ഞാല് ഇപ്പോഴൊരു ഫോൺ ഫ്രീ തരുമോ എന്നു ചോദിച്ചുകഴിഞ്ഞാല് ആ ഫോണിന്റെ വിലയും കൂട്ടിയാണ് ഞാൻ ഒരെണ്ണം ഫ്രീയായിട്ടു തരുന്നത് അപ്പോള് അതിൻ്റെ വില മറ്റേ വാങ്ങിക്കുന്നവർക്കറിയില്ല ഏ എല്ലാവരും വിചാരിക്കും ഒരെണ്ണം ഫ്രീയായിട്ട് കിട്ടിയല്ലോ എന്ന് മ്മ് അപ്പോള് അത് വില നമുക്ക് രണ്ടിന്റെയും വില ഇതിനകത്ത് ഒരെണ്ണത്തില് ചാർജ് കയറ്റണതു മാത്രമേ ഉള്ളൂ അപ്പോള് അത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ പറഞ്ഞ ഫോണെടുക്കുന്നതില് കുഴപ്പമൊന്നുമില്ല ആ പിന്നെ വേറൊന്നുണ്ട് ആ അതു വന്നാൽ കുഴപ്പമൊന്നുമില്ല മാന്യമായി ചെയ്യാം തരാം കാരണമെന്നുവച്ചാല് നമുക്ക് സ്ഥിരം വരുന്ന കസ്റ്റമറല്ലേ എന്നാല് എന്നാല് ഡിസ്കൗണ്ട് ഇന്നു നമ്മള് ഇത്രയൊക്കെ വില പറഞ്ഞാല് പിന്നെ നമ്മളീ ഇറച്ചി അങ്ങനെയൊക്കെ പരിപാടിയെക്കെ ഉണ്ട് കെട്ടോ പിന്നെ പച്ചക്കറി വേണ്ടവർക്ക് പച്ചക്കറി അങ്ങനെ പിന്നെ മറ്റേ ആ ഫ്രൂട്സ് ഇല്ല ഇല്ല അത് നമ്മളേ നമ്മള് ഇപ്പോള് കാര്യം പോരെ പറഞ്ഞാല് വീട്ടില് പോയി കാണാന് ഒരു കാര്യം ഓർത്തത് പിന്നല്ലാ ഞായറാഴ്ച മറ്റേ ബീഫിനൊക്കെ ഒരു ചെറിയ ഡിസ്കൗണ്ടൊക്കെ വച്ചിട്ടുണ്ട് കെട്ടോ നമ്മള് ആ അപ്പോള് അങ്ങനെ അതു നമ്മളിപ്പോള് ഇപ്പോള് നമ്മളന്നു വിളിച്ചപ്പോഴാ ഇപ്പോള് ഒരു വർഷമായില്ലേ ഇപ്പോള് നമ്മള്ള് ഈ കാണുന്ന ലാപ്പും എടുത്തിട്ട് പിന്നെയാ ഒരു പോക്കു പോയിട്ട് പിന്നെയതിൻ്റെ ഇടയ്ക്കു വന്നാൽ ഇടയ്ക്കൊന്നു പരിചയപ്പെടുത്തുക എന്നാലല്ലേ നമുക്കുള്ള ബന്ധം നടക്കുകയുള്ളു ആ ആ അതു കുഴപ്പമുണ്ടാകില്ല നല്ല ഫ്രഷ് സാധനമാണ് നിങ്ങള്ക്കറിയാമല്ലോ നമുക്ക് പറ്റീരു പ്രസ്ഥനമില്ല നമുക്ക് ആ നമുക്ക് ധൈര്യമായിട്ടിരിക്കൂ ധൈര്യായി വേറെ കാര്യം കൂടെ ഉണ്ടേ നിങ്ങള് മാത്രം പോരാ കെട്ടോ നമ്മളെ സഹായിക്കണേ വേറെ നിങ്ങളുടെ കൂടെയുള്ള ടീമുകളൊക്കെയൊന്നു പരിചയപ്പെടുത്തി മ്മ് എന്നാല് ആയിക്കോട്ടെ നമുക്കു പിന്നെ കാണാം നമുക്ക് ഇടയ്ക്കു വരൂ എന്നേ ഒന്നിറങ്ങ് ഇങ്ങോട്ട് ഇടയ്ക്ക് ആ എന്നാല് ആയിക്കോട്ടെ ഓക്കെയൊക്കെ